നമസ്കാരം അ പറയൂ സാർ എന്താണ് സാർ എന്താണ് സാർ ഉദ്ദേശിക്കുന്നത് ഓടിക്കുമ്പോൾ നമുക്ക് ഗിയറ് ചേഞ്ച് ആവാത്ത എന്താണ് സാർ പ്രശ്നം

ആ സാർ നമ്മക്ക് അപ്പം എഞ്ചിൻ്റെ ഉള്ളില് ക്രാങ്ക്ഷാഫ്റ്റ് എന്തേലും പ്രോബ്ലം ആയിട്ടാകും അപ്പം ബോഡി ചെക്ക് ചെയ്യേണ്ടി വരും നമക്ക് കുറച്ച് സമയം എടുക്കും അപ്പം സാറിൻ്റെ ഒഴിവ് പോലെ വരേണ്ട വരും സാറിന് അപ്പോൾ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ആ പറഞ്ഞേര സാർ അപ്പം നമക്ക് എഞ്ചിനുള്ള ബെൽറ്റിൻ്റെ പ്രശ്നം ആയിരിക്കും സാർ നമക്ക് ആ വണ്ടി ഓടുമ്പം അയിൻ്റെ ബെൽറ്റ് കറങ്ങുന്നുണ്ടാവുമല്ലോ അപ്പം ആ ബെൽറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും ഒരു കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് അത് ഇടയ്ക്ക് ഇടയ്ക്ക് മാത്രമേ ഉള്ളോ സാർ ഇഷ്യൂ വരുന്നത് അപ്പോൾ സെലക്ടറിൻ്റെ പ്രശ്നം ആയിരിക്കും ഉള്ളിലുള്ള സെലക്ടറിൻ്റെ പ്രശ്നം ആയിരിക്കും ഗിയറ് ഓൺ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിൽനിന്ന് നല്ല സൗണ്ട് കേക്കുന്ന് ഉണ്ട് അല്ലേ സാർ

നമക്ക് അത് ഇപ്പോൾ ഗിയർ ബോക്സിന് ഉള്ളില് സെലക്ടർ ഉണ്ടാവും അപ്പം സെലക്ടർ കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും അയിൻ്റെ വല്ല ഒരു ഒരു റൗണ്ട് ഉള്ള ഒരു സാധനം ആണ് അതിന്റെ പല്ല് പോയിട്ട് ഉണ്ടാവും നമ്മുക്ക് അതൊന്ന് ഊരി ചിലപ്പം മാറ്റേണ്ടി വരും നിങ്ങക്ക് ഒന്നും വരില്ല കാരണം കംപ്ലീറ്റ് അത് ഒന്ന് ഊരണം അപ്പോൾ നിങ്ങക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ കഴിയുമെങ്കിൽ നമക്ക് അത് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ കറക്റ്റ് ബ്രേക്കോ വല്ലോം മാറ്റാൻ ഉണ്ടോ അതോ എഞ്ചിൻ ഓയില് ചേഞ്ച് ചെയ്യാൻ ഉണ്ടോ ഓക്കെ സാർ ആ ഓക്കെ അപ്പം നമ്മുക്ക് ഏകദേശം നാല് മണിക്കൂറിന് മുകളിൽ എടുക്കും കാരണം കമ്പ്ലീറ്റ് ആയിട്ട് എഞ്ചിൻ്റെ ഭാഗങ്ങള് ഊരണം കമ്പ്ലീറ്റ് ഊരീട്ട് നമക്ക് ചെക്ക് ചെയ്തിട്ട് വേണം റീ ഇൻസ്റ്റാള് ചെയ്യാൻ അപ്പോൾ കുറച്ച് സമയം എടുക്കും ഞങ്ങള് സാറിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് എത്തിക്കണോ അതോ സാർ വന്ന് ഡെലിവറി എടുക്കാൻ വരുവോ നമ്മക്ക് അത് ഊരി നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ സാർ ഊരി നോക്കീട്ട് അയിൻ്റെ അവസ്ഥ നോക്കീട്ട് നമ്മുക്ക് എന്ത് ഒക്കെ മാറ്റണന്ന് നോക്കീട്ടേ പറയാൻ കഴിയുള്ളൂ ഏകദേശം ഒരു അയ്യായിരം ആറായിരം രൂപേൻ്റെ അടുത്ത് വരും ഇനി ചിലപ്പോൾ അത് കുറയാൻ ചാൻസ് ഉണ്ട് നമ്മള് ഉദ്ദേശിച്ച പോലെ വലിയ ഇത് ഇപ്പം ഇല്ലേല് കുറയും ചെലപ്പം ഉദ്ദേശിക്കാണ്ട് ചിലപ്പം കൂടാനും ചാൻസ് ഉണ്ട് ആ നമ്മുക്ക് ചെയ്ത് നമ്മുക്ക് ആ നമ്മടെ യൂസിന്ന് വെച്ചാ നമ്മള് ഡെയിലി യൂസ് ആണെങ്കില് അയിന് അനുസരിച്ച് നമ്മള് ഒരു മൂവായിരം നാലായിരം കിലോമീറ്റർ കൂടുമ്പോ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും അല്ലാതെ നമ്മള് കുറേ കാലം നിർത്തീട്ട് പിന്നെ എടക്ക് എടുക്കുന്ന ഒരു ആളാണേല് നമക്ക് വണ്ടീൻ്റെ മെയിൻ്റനൻസ് കറക്റ്റ് ആയിരിക്കില്ല അപ്പോൾ ആ കുറച്ച് കൂടെ ഫ്രീക്വൻറ്റ് ആയിട്ട് നമ്മള് മാറ്റേണ്ടി വരു എന്നാണ് ആ ഇടയ്ക്ക് ഒരു മെയിൻ്റനൻസ് ചെയ്യുക ഇപ്പ ടോട്ടൽ ആയിട്ട് ചെക്കപ്പ് ഒരു മൂവായിരം കിലോമീറ്റർ ഓടുമ്പഴും മറ്റും നന്നായി കാരണം അലൈൻമെൻറ്റും കാര്യങ്ങളും ഇത് ആയി കഴിഞ്ഞാല് ഒര് ടയറ് മാത്രം അത് തേഞ്ഞ് പോവും അല്ലേല് ബ്രേക്ക് പാഡ് കറക്റ്റ് അല്ലേല് ആ അപ്പം സ്റ്റെപ്പ് വരെ തേഞ്ഞ് പോവും അല്ലേൽ എഞ്ചിൻ്റെ വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും ചെലപ്പം പെട്ടെന്ന് കൂടാൻ ചാൻസ് ഇണ്ട് അപ്പോ ഒരു ഒരു മാസത്തിൽ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്യുക അത് മൂവായിരം കിലോമീറ്റർ ആകുമ്പോൾ കമ്പ്ലീറ്റ് നമക്ക് അത് മെയിൻ്റനൻസ് ചെയ്യുന്നത് ആയിരിക്കും നല്ലത് ഇന്നോ ഇല്ല നമ്മള് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഉള്ളൂ ഞായറാഴ്ച നമുക്ക് ഓഫ് ആണ്

ആ പറ്റും സാർ കുഴപ്പം ഇല്ല നമ്മുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അതെ നമ്മക്ക് പിക്ക് അപ്പും ഉണ്ട് ഡെലിവറിയും ഉണ്ട് നമ്മള് ചെയ്തെരാ കുഴപ്പം ഇല്ല ആ ഓക്കെ സാർ ആ സാർ നമ്മള് വന്നിട്ട് എടുക്കാം എന്നാ നമ്മുക്ക് ഒന്നാമത്തെ ശനിയാഴ്ച തന്നെ ഇടാം സാർ കുഴപ്പം ഇല്ല ആ എന്നാ ശരി കുഴപ്പം ഇല്ല സാർ നമ ക്ക് എങ്ങനെ ആയാലും കുഴപ്പം ഇല്ല ആ ആ ശരി സാർ ആ ശരി സാർ ആ ശരി സാർ നമ്മുക്ക് ചെയ്യാം ആ സാർ നമ്മള് അത് ഫോമ് ഉണ്ട് സാറ് ഫോമ് ഫില്ല് ചെയ്ത് അന്ന് നമ്മള് വീട്ടിലേക്ക് ആളിനെ വിടാം